ഓട്ടം ഒരു നല്ല എക്സ്സൈസ് ആണ് നമ്മുടെ ഒന്ന് ഫിസിക്കലി ഒക്കെ സ്ട്രോങ്ങ് ആക്കുന്നതിന് ഓട്ടത്തിലൂടെ റണ്ണിങ്ങിലൂടെ സാധിക്കാറുണ്ട് ഇപ്പം ഇപ്പോൾ നമ്മൾ ഓടാതിരിക്കുന്ന ഒരു വ്യക്തി പെട്ടന്ന് ഒരു ദിവസം ഓടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ശ്വാസം തടസ്സമൊക്കെ അനുഭവപ്പെടും പെട്ടന്ന് ഹൃദയമിടിപ്പ് കൂടുകയും വല്ലാതെ അഷ് അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്തേക്കാം പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഓടാനാഗ്രഹിക്കുന്നു നല്ലൊരു ഓട്ടത്തിന് ഉടമ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പം കുറച്ച് ദൂരം ഓടുന്നു കുറച്ച് മീറ്റർ ഓടുന്നു ഒരു മീറ്റർ ഓടി കഴിഞ്ഞ് രണ്ട് മീറ്റർ ഓടി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഓട്ടത്തിൻ്റെ സമയവും ഓട്ടത്തിൻ്റെ ദൂരവും കൂട്ടി കൂട്ടി വന്നാൽ ആ ഓടുന്ന വ്യക്തിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്ക് ആരോഗ്യപരമായി ഇത്തിരി പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാതെ നമുക്ക് ഓടാൻ ഓട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഓട്ടത്തിന് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ക്ഷേമത്തെയും ഗുണപ്രദമായ രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തനായിട്ട് ഓട്ടത്തിന് സാധിക്കാറുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓട്ടത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കെട്ടികിടക്കുന്ന കൊഴുപ്പുകളെ തള്ളിക്കളയാനായിട്ട് നീക്കം ചെയ്യുവാനായിട്ടും സാധിക്കാറുണ്ട് ഓടുന്നതിലൂടെ നമ്മൾ കുറെ വിയർക്കുകയും നമ്മളുടെ വിഷ ശരീരത്തിലെ അനാവശ്യമായ അഴുക്കുകളെ നമുക്ക് നീക്കം ചെയ്യാനായിട്ടും ഓട്ടത്തിലൂടെ സാധിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കുറെ ടെൻഷനും മാനസികമായി സമ്മർദ്ദം ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഓട്ടത്തിലൂടെ ആശ്വാസം കണ്ടെത്തനായിട്ട് നമുക്ക് സഹായിക്കും നമ്മളെ മെൻറലി മാനസികമായൊക്കെ കുറച്ചും കൂടെ ശക്തി പെടുത്തുവാനായിട്ടൊക്കെ ഓട്ടം നമ്മളെ സഹായിക്കാറുണ്ട് ഓട്ടത്തിന് ശേഷം ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം കൊളുത്തി പിടിക്കാൻ വയറ്റിലങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് അങ്ങനൊക്കെ ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ട് എന്തായാലും ഓട്ടം നല്ലതാണ് നമ്മളെ ഓട്ടത്തിന് മനസികാരോഗ്യത്തെയും ക്ഷേമത്തെയും ഗുണപരമായി തന്നെ ഓട്ടം സ്വാധീനിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ഓടുന്നത് വഴി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ സ് ഉപയോഗം ചെയ്യും വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെയും വൈകുന്നേരവും ഒരു മണിക്കൂറൊക്കെ ഓടുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അവരുടെ തടി കുറക്കുവാൻ ആയിട്ടൊക്കെ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ തടി കുറക്കുവാൻ മാത്രമല്ല ഭക്ഷണം വിശപ്പ് വിശപ്പ് വിശപ്പ് അനുഭവിക്കാനും ഓട്ടം സഹായിക്കുന്നു എന്നിരുന്നാലും ഓട്ടം എനിക്ക് ആശ്വാസം നൽകാറുണ്ട് ഞാൻ ഇടക്കിടക്ക് ഓടാറുണ്ട് നല്ലതാണ് ഓട്ടം നമ്മളും നമ്മുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെ നല്ലതാണ്